കേരളത്തിലെ നിയമവ്യവസ്ഥയിൽ കോടതികള് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് ജുഡീഷ്യൻ അഡ്മിനിസ്ട്രേഷൻ പൊതു അധികാരപരിധിയിലുള്ള ഇടക്കാല കോടതികൾ അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട് കോടതികള് തന്നെ മൂന്നുതരം ആണുള്ളത് ഹൈക്കോടതി ഹൈക്കോടതിയുണ്ട് സുപ്രീംകോടതിയുണ്ട് മജിസ്ട്രേഷൻ ഉണ്ട് അങ്ങനെ ആരെങ്കിലും എന്ത് തെറ്റ് ചെയ്താലോ ഇല്ലെങ്കിൽ കൊല ചെയ്താലോ ആരെങ്കിലും ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ചെയ്താല് ആദ്യം നമ്മൾ തന്നെ പിന്നെ പോലീസ് ആദ്യം അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പിന്നെ അവിടന്ന് കോടതിയിലേക്ക് മാറുകയാണ് ചെയ്യുക പിന്നെ കോടതിയിൽ വെച്ചിട്ടാണ് അന്തിമ തീരുമാനം ഇവിടെ വച്ചിട്ട് ആവും ഒരു കൊലയാളിക്ക് ആണെങ്കിലും അയാൾക്കുള്ള ശിക്ഷ അവിടന്ന് നടപ്പാക്കുകയാണ് ചെയ്യുക ഒന്നുങ്കിൽ അയാൾ ചെയ്ത കുറ്റത്തിന് അനുസരിച്ചാണ് അയാൾക്കുള്ള ശിക്ഷ നടപ്പാക്കുക ഇല്ലെങ്കില് എന്തെങ്കിലും പിഴയാണ് പിഴയും പൈസ അടക്കലും ആണ് ചെയ്യല് പിന്നെ അങ്ങനെ ഹൈക്കോടതിയിൽ വെച്ച് കോടതിയിൽ വെച്ച് തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല അതുതന്നെയായിരിക്കും സംഭവിക്കുക